നിയമപരമായിട്ട് രേഖകളുണ്ടാക്കുന്നതിൽ ഞങ്ങളുടെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ദുഖകരമായ അനുഭവം അതായത് ഇത് പ്രയാസമുള്ള ഒരു കാര്യമല്ല ഇവ ലഭിക്കാനായിട്ട് നമ്മൾ ഓരോ ഓഫീസുകളിലും കയറി ഇറങ്ങാൻ കയറി ഇറങ്ങി നടക്കുക തന്നെ വേണം അപ്പോൾ അ ലിസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീടിന് പണിയാനുള്ള ഒരു സാങ്ഷൻ അല്ലെങ്കിൽ അതിന് ഒരു അനുമതി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കട തുടങ്ങാനുള്ള ഒരു ലൈസൻസ്സ് അതിനൊക്കെയും കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതിന് കിട്ടാനായിട്ട് നമ്മൾ നിയമപരമായിട്ട് അതിൻ്റെ ഒരു രേഖ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താണ് ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പം ഒരു ബെർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട അത് ചെറിയ കാര്യമാണ് ഇപ്പോൾ അത് തന്നെ അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു ഡെത്ത് സട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു ഇൻകം ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ഫാമിലി സർട്ടിഫിക്കറ്റ് പൊസെഷൻ ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പം നമുക്ക് അതിനൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ നേരിട്ടത് ഒന്നാമത്തെ കാര്യം എന്താണെങ്കിൽ ഇപ്പോൾ ഗവണ്മെൻ്റ് ചെയ്തിരിക്കുന്നത് അത് ഓൺലൈൻ അപ്ലിക്കേഷനാണ് വച്ചിരിക്കുന്നത് അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനാകുമ്പോൾ കാര്യം നമുക്ക് അവിടെ പോയി നിന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളില്ല നമുക്ക് അത് ഓൺലൈനിൽ വരും പക്ഷെ അതായാലും ടൈം എടുക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ അതായത് ഇപ്പം നിയമപരമായത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ചില അതായത് ഇപ്പം ഒരു സ്ഥലം ഒരൂ വസ്തു വിൽപന നമ്മൾ നടക്കുന്നതിൽ അതിൽ നൂറ് നിയമപര പ്രശ്നങ്ങളുണ്ടായിക്കാം അപ്പോൾ ആ നിയമപര അതിന് ആ നിയമത്തിന് നമുക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ആ വസ്തു വിൽക്കാൻ തടസ്സമായി നിൽക്കുന്ന വല്ല രേഖകളും ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് അവരുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ പലതരം രേഖകൾ ചോദിക്കും ഇപ്പോൾ ഒരു ഒരു ഇപ്പം ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അതൊരു നിയമപരമായ രേഖയാണ് അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മുടെ എല്ലാ വർഷത്തെ നികുതി അടച്ച റസീറ്റ് നികുതി അടച്ചത് നമ്മൾ അതിൻ്റെ കണക്ക് നമ്മൾ ടാക്സ് അടക്കുന്നുണ്ട് അതൊക്കെ ഇതിൽ അവശ്യമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കണം അതൊക്കെ ചിലപ്പം നമുക്ക് നികുതി അടച്ച റസീറ്റ് ഇന്ന് ചെല്ലാൻ പറഞ്ഞപ്പം അവർ പറയും ഇന്ന് വരണ്ട നാളെ വരാനായിട്ട് പറയും അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഭയങ്കര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇതിലേറ്റവും പ്രയാസം എനിക്ക് തോന്നുന്നു ഈ ഈ സർട്ടിഫിക്കറ്റിൽ മെയിനായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് ഈ കാലിക്കറ്റ് യൂൺ അതായത് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ പല യൂണിവേഴ്സിറ്റി പല തരത്തിലാണ് കൊടുക്കു ന്നത് അതായത് അവരുടെ സമയം അനുസരിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ചിലതിപ്പോൾ അവിടെ ഒരു നമുക്ക് ഒരു മാർക്ക് ലിസ്റ്റ് വന്നു അതിൽ മാർക്കിന് വ്യത്യാസം വന്നു അപ്പോൾ നമ്മൾ അത് അവിടെ ചെന്ന് നോക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ പിന്നത്തെ വർഷം അടുത്ത വർഷം ബിരുദം എടുക്കുന്ന കുട്ടികളുടെ കൂടെയായിരിക്കും നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുക അതുപോലെ തന്നെ അത് ഇപ്പം ഞാൻ ചെറുതായിട്ട് പറയുന്നുള്ളൂ ഇപ്പം അത് പോലെ തന്നെ നൂറ് കാര്യങ്ങളുണ്ട് ഇപ്പം നിയമപരമായിട്ട് പറയാനാണെങ്കിൽ ഇപ്പം ഒരു നമ്മൾ ഒരൂ ഒരു നീതി കിട്ടാനായിട്ട് ഒരു നിയമത്തിന് പോയാൽ തന്നെ ഒരൂ കേസിന് പോയാൽ തന്നെ അത് ചിലപ്പം ഇങ്ങനെ നീണ്ടു പോയി അത് ഹിയറിങ് വച്ച് സമയമെടുത്ത് പിന്നെ അടുത്ത വർഷമൊക്കെയായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ നമ്മളെ ഒരു സാധനം നമ്മുടെ കൈയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇപ്പോൾ കുറച്ച് ഗോൾഡ് നഷ്ടപ്പെട്ടു അത് തന്നെ ആയില്ലെ നമ്മുടെ ഓഫീസിലും അവിടെ ഇവിടെയുമൊക്കെ കയറി വരുമ്പോൾ ഇന്ന് വാ നാളെ വാ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ഒരു സമയം കിട്ടണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം